നമ്മുടെ ഗ്രാമ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കർഷകർ നേരിടുന്ന വെല്ലുവിളി എന്താണെന്ന് വച്ചാൽ ധനസഹായം കുറയലാണ് പിന്നേയും കുറേ പ്രശ്നങ്ങൾ നേരിടുമെങ്കിലും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ധനസഹായം ഇല്ലാതെയാണ് കാരണം അവർക്ക് പൈസ കിട്ടാൻ യാതൊരു മാർഗ്ഗമോ ഇല്ല വല്ല ബാങ്കിൽ നിന്ന് കിട്ടിയാലോ ഒക്കെ തിരിച്ചടയ്ക്കാനുള്ള ഒരു തിരിച്ചടക്കാനുള്ള പൈസ ഒന്നും ഇപ്പം അവരുടെ കയ്യിൽ ഉണ്ടായി എന്ന് വരില്ല പിന്നെ ആരും പൈസയും കൊടുക്കില്ല കാരണം എന്താണെന്ന് വച്ചാൽ അവർക്ക് തിരിച്ച് തരുമോ തിരിച്ച് പൈസ കിട്ടുമോ എന്ന് ഒരുറപ്പുമില്ല കാരണം അവരുടെ കൃഷി എന്ന് പറയണത് സത്യം പറഞ്ഞാൽ ഈ കാലാവസ്ഥ മാറ്റൊ ഉള്ളത് കൊണ്ട് ഒരു ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിലായിരിക്കുകയാണ് ഇപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ വിളവ് നല്ല രീതിയിൽ കിട്ടും ചിലപ്പോൾ ഒന്നും കിട്ടില്ല കിട്ടിയാൽ തന്നെ നല്ലത് കിട്ടണമെന്ന് ഒരു ഉറപ്പുമില്ല അപ്പം ആർക്കും ഓരു പൂർണ്ണമായിട്ട് പൈസ കൊടുക്കാൻ നല്ല മടിയാണ് എല്ലാവർക്കും പിന്നെ ബാങ്കുകളും അതെ ഇങ്ങനെ പലിശ ലോണ് കൊടുത്താൽ തന്നെ പലിശ കുറച്ച് കൊടുക്കുക അല്ലേ ലോണിൽ ഇളവ് കൊടുക്കുക ഒന്നുമില്ല ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടി കൊണ്ട് പോകും ലോണ് വേറെ ഒരു മറ്റവും ഇല്ല അതു കാരണം കർഷകർക്ക് മുഴുവൻ സമ്മർദ്ദമാണ് എന്ന് വച്ചാൽ അവർക്ക് ഇതെങ്ങനേലും അടച്ച് തീർക്കണം അല്ലോ എന്ന് നല്ല രീതിയിലൊരു പ്രശ്നമാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് കാലാവസ്ഥ മാറ്റം കാലാവസ്ഥ മാറ്റം എന്താണെന്ന് വച്ചാൽ ഇങ്ങനെ മാറി വരുന്ന കാലാവസ്ഥകൾ കാരണം അവർക്ക് കൃത്യമായിട്ട് ഒരു എന്താണ് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ മാറി വരുമ്പോൾ അവരുടെ ചിലപ്പോൾ വിളവ് ശരിയാകും ഇല്ലെങ്കിൽ ശരിയാകില്ല അപ്പോൾ ഇത്രയും ചെയ്ത അദ്ധ്വാനം മൊത്തം ആ ഒരു കാലാവസ്ഥയില് ഒരു ചെറിയ മറ്റുള്ള കൊണ്ട് മൊത്തം നഷ്ടാവും ആണ് അപ്പോൾ അതൊരു മറ്റൊരു വലിയ ഭയങ്കര പ്രശ്നമാണ് പിന്നെ എന്താണെന്ന് വച്ചാൽ പിന്നെ ഇതിൽ പറയുന്നത് സാങ്കേതിക സഹായമാണ് സാങ്കേതിക സഹായാത്തിൻ്റെ എന്താണെന്ന് വച്ചാൽ ആൾക്കാർക്ക് കൃത്യമായിട്ട് ഇപ്പോഴത്തെ ടെക്നൊളജികളെക്കുറിച്ചും പല കർഷകർക്കും അറിയില്ല അവരിപ്പളും പഴയ രീതിയിൽ പിന്തുടർന്ന് കൊണ്ടിരിക്കുകയാണ് പഴയ പതുക്കെ പതുക്കെ ഉള്ള രീതിയിൽ നമുക്കിപ്പം പുതിയ രീതികളൂണ്ട് പുതിയ പുതിയ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് എത്താവുന്ന രീതീകളുണ്ട് അതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടെങ്കിൽ കർഷകർക്ക് നല്ല രീതിയിൽ വിളവുകളൊക്കെ ഉണ്ടാക്കാനും നല്ല രീതീയിലൊക്കെ ഉണ്ടാക്കാനൊക്ക പറ്റും പിന്നെ നമുക്ക് അവർക്കിടയിൽ നല്ല രീതിയിൽ കുറേ പരിശീലനം നല്ല പുതിയ വരുന്ന കർഷകർക്ക് നല്ല രീതിയിൽ പരിശീലനം കൃത്യമായിട്ടെല്ലാം പറഞ്ഞതൊക്കെ കൊടുക്കാനാണെങ്കിൽ ഒരു ശാസ്ത്രീയമായി എല്ലാം ഒന്ന് പറഞ്ഞ് കൊടുക്കാനാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വിളവൊക്കെ ഉണ്ടാക്കാൻ പറ്റും മെയ്നായിട്ടും നമ്മൾ ധന സഹായമാണ് ഞാൻ പറയാനുള്ളത് ധനം എന്ന് വച്ചാൽ പൈസ നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലല്ല ആവശ്യത്തിന് കൊടുക്കുകയണെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് നല്ല ഇതിൽ വിളവെടുക്കാനും പിന്നെ കാലാവസ്ഥ മാറ്റം ഭയങ്കര ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് കാലാവസ്ഥ മാറ്റങ്ങൾ കാരണമാണ് നമുക്കറിയാമല്ലോ നേരത്തെ പറഞ്ഞ പോലെ കൃഷി മൊത്തം നശിച്ച് പോകും അപ്പോൾ കാലാവസ്ഥയിൽ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കാം പിന്നെ കൂടുതൽ നമ്മൾ ഈ മൊത്തത്തിൽ ഈ ഭൂമിയെ പറ്റിയും മണ്ണിനെപ്പറ്റിയും വിളവുകളെ പറ്റിയും ഒക്കെ കർഷകർക്ക് കൃത്യമായിട്ടൊരു അറിവ് കിട്ടണമെങ്കിൽ ഏതൊക്കെ അരികൾ ഏതൊക്കെ നെല്ലുകൾക്കാണ് നല്ല വിളവ് ലഭിക്കുക ഏതൊക്ക മണ്ണു ഉപയോഗിച്ചാലാണ് ഏതൊക്ക കീടനാശിനികൾ ഏതൊക്കെ ഉപയോഗിച്ചാലാണ് നല്ല വിളവ് കിട്ടുക എന്നൊക്കെ അവർക്ക് തന്നെ ഒരു കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല വിളവുകളും നല്ല നല്ല ഉൽപന്നങ്ങളൊക്കെ നമുക്ക് കിട്ടും അതു വഴി നമ്മുടെ ഇന്ത്യയിലുള്ള എക്കണോമിക്ക് ഒക്കെ നല്ല സാമ്പത്തിക രംഗമൊക്കെ ഉയരും നമുക്കറിയാമല്ലോ ഭാവി കർഷ് കൃഷിയാണ് കാരണം കൃഷിയില്ലെങ്കിൽ നമുക്ക് ജീവിച്ച് പോവാൻ പറ്റില്ല നമുക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം എന്താണ് കൃഷി തന്നെ വേണം കൃഷിയുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിത്രയും കാലം ജീവിച്ച് പോകുന്നത് അപ്പോൾ നമ്മൾ കൃഷിയിലേക്ക് കൂടുതലായി പ്രാധാന്യം കൊടുക്കാം അപ്പേക്ക് അവർക്ക് വേണ്ടത് എന്താണ് കാര്യങ്ങളൊക്കെ വേണ്ടത് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യ സമയത്ത് എത്തിക്കുക ഗവൺമെൻ്റാണ് ഇതിന് മെയ്നായിട്ട് സർക്കാർ ഇതൊരു പ്രധാന പ്രശ്നമാക്കിയിട്ട് കൃത്യമായിട്ട് എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് കൊടുക്കേണ്ട സഹായങ്ങളൊക്കെ കൊടുക്കണം